ആ ഹലോ ഞാൻ ഒരു കസ്റ്റമറാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒരു ബർത്ത്ഡേ കേക്കിന് വേണ്ടി വിളിക്കുവാണ് നിങ്ങളുടെ കടയിൽ അതുണ്ടോ ഏതൊക്കെ കേക്ക് ഉണ്ട് ഏത് തരത്തിലുള്ള കേക്കാണ് ഉള്ളത് ആ ആ ആ അതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാണ് വാനില ബേക്കറിയുടേ റേറ്റ് എങ്ങനെയാണ്

ഓക്കെ എനിക്ക് വാനില ബേക്കറി മതി ഇത് വാനില കേക്ക് മതി കേട്ടോ ആ അപ്പം അതിൻ്റെ റേറ്റ് അറന്നൂറ് എന്നല്ലേ പറഞ്ഞത് ആ അപ്പോൾ അത് മതി എനിക്ക് കേട്ടോ അപ്പം നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ പേരൊക്കെ എഴുതിക്കോ ബർത്ത്ഡേയുടെ പുറത്ത് ഒക്കെയോ കേക്കിൻ്റെ പുറത്ത് അഞ്ജു മാത്യു ആ പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സ് ഓക്കെ ഓക്കെ ഓക്കെ വൈകുന്നേരമാണ് അപ്പോൾ എപ്പം കൊണ്ടു വരാൻ സാധിക്കും നിങ്ങൾക്ക് എത്തിക്കാം ആ അപ്പം വരുമ്പം എങ്ങനെയാണ് അതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാണ് വന്നു മേടിക്കുവാണോ അതോ ഗൂഗിൾ പേ ചെയ്താൽ മതിയോ

ആ ഓക്കെ ആ ആ ആ ആ ഞാൻ ഗൂഗിൾ പേ ചെയ്തോളാം കേട്ടോ കറക്റ്റ് സമയത്ത് എനിക്ക് കിട്ടിയിരിക്കണം ആ നിങ്ങൾ ഓ ആ ഐറ്റം ഒന്നും വേണ്ട എനിക്ക് ഇത് മാത്രം മതി

ആ എന്നാൽ കൊണ്ടു പോര് ആ കുഴപ്പം ഇല്ല കുഴപ്പം ഇല്ല ആ ഓക്കെ നല്ല കേക്ക് ആണല്ലോ അല്ലേ ആ അതുകൊണ്ടാണ് ഓ ഓക്കെ ആ ഓക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലോ നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് അത് കൊണ്ടാണ് നല്ലതാണ് ആ ആ അതെ ആ ഓക്കെ ഓക്കെ

ഓ ഓക്കെ അന്നേരം കൊടുത്തു വിടുമല്ലോ സമയത്തിന് കിട്ടുമല്ലോ അല്ലേ ആ ഹാ ഹാ അ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ